ഞാൻ നന്നായിട്ട് തയ്ക്കും നന്നായിട്ട് തയ്ക്കും നന്നായിട്ട് അച്ചാറിടും പിന്നെ നന്നായിട്ട് വർക്ക് മുത്ത് കൊണ്ടുള്ള പിന്നെ വളകൾ കമ്മലുകൾ ഡ്രസ്സിൽ പിന്നെ നമ്മളുടെ കൈ തുന്നിയിട്ട് മുത്തുപിടിപ്പിക്കില്ലേ അങ്ങനെയൊക്കെ ചെയ്യും അതേപോലെത്തന്നെ മുടി നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കും എനിക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് എൻ്റെ കഴിവിൽ ഏറ്റവും പ്രശംസനീയം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അച്ചാർ ഉണ്ടാക്കി കൊടുക്കുന്നതും ഡ്രസ്സ് തുന്നി കൊടുക്കുന്നതാണ് നന്നായിട്ട് ഡ്രസ്സ് തയ്ച്ച്കൊടുക്കും എനിക്കൊരു മോഡൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പറഞ്ഞു വരുന്നവർക്ക് അങ്ങനെ നൈറ്റി ആയാലും ചുരിദാർ ആയാലും ബ്ലൗസ് തുണി ആയാലും പട്ടുപാവാട ആയാലും ഉടുപ്പായാലും അടിച്ചു കൊടുക്കാറുണ്ട് അതേപോലെത്തന്നെ അച്ചാറ് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പുറത്തുള്ളവരും വാങ്ങിച്ചു കൊണ്ട് പോകുന്നുണ്ട് അപ്പം ഒരു എന്താ പറയുക എല്ലാവരും നല്ല അത് വികസിപ്പിച്ച് എടുക്കാൻ വേണ്ടി നമ്മൾ ഒറ്റയടിക്കൊന്നും ഒരു കാര്യവും നടക്കില്ല നമ്മൾ നിരന്തരമായിട്ട് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പം മാത്രമേ നമുക്കത് നന്നായിട്ട് വരികയുളളൂ അങ്ങനെ ചെയ്തു എൻ്റെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇത് രണ്ടിലും